ഞങ്ങടിവിടേ അതായത് വിനോദസഞ്ചാരികൾ വരുവാണെങ്കില് കൂടുതൽ ആയിട്ടും താമസിക്കാനുള്ള സൗകര്യം ആണ് കൂടുതലായിട്ടും പരിതാപകരമായിട്ടുള്ളത് കാരണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വേണ്ടത് അപ്പോൾ ഇവിടെ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കേ ഉണ്ടെങ്കിലും എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ലാ അപ്പോൾ ചില സമയങ്ങളിൽ സീസൺ അനുസരിച്ചു ആണ് ഇവർ ഇടുക പിന്നെ സീസണിലാണെങ്കിൽ പൈസയും കൂടുതലായിരിക്കും അപ്പം അവർ താമസത്തിനും ഒക്കെ ആണ് കുറച്ചു ബുദ്ധിമുട്ട് പെടുക കാരണമെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ എപ്പോഴും നമുക്ക് താമസ സൗകര്യം കിട്ടണമെന്നില്ല പിന്നേന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ചെറുതായിട്ടൊക്കേ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു മഴ ടൈമിലാണ് വരുന്നതെങ്കിൽ ഭക്ഷണത്തിനൊക്കേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എല്ലാ ഹോട്ടലുകളും ഓപ്പൺ ആയിരിക്കണമെന്നില്ല പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗതം മഴ ടൈമിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കാം കാരണം എന്ന് വെച്ചാൽ വെള്ളം കയറുക മഴ പെയ്താൽ മരം വീഴാം അങ്ങനത്തെ കാര്യങ്ങളൊക്കേ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടും നമ്മൾ വരേണ്ടത് വേനൽ ടൈമിൽ ആയിരിക്കും വരുന്നത് കുറച്ചുടെ നല്ലത് പിന്നേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങോട്ടേക്ക് കയറ്റി വിടണമെങ്കിൽ എന്തെങ്കിലും രേഖകൾ കാര്യങ്ങളൊക്കേ കാണിക്കേണ്ടിവരും നമ്മൾ അപ്പോൾ ചുരത്തീന്ന് ഇങ്ങോട്ട് കയറ്റി വിടണമെങ്കിൽ അതൊക്കേ ഒന്ന് ഒരു കുറച്ച് വെല്ലുവിളിയായിട്ടാണ് തോന്നുന്നത്